ഈ മൂന്ന് മാധ്യമങ്ങളിലും വളരെ ലളിതമായിട്ട് ആണ് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ മൂന്ന് മാധ്യമവും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ അല്ല ഉപയോഗിക്കുന്നൊരാളാണ് അപ്പോൾ മലയാള ഭാഷ വളരെ ലളിതമായി ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം മലയാള ഭാഷയുടെ തന്നെ പല പല ശൈലികളുണ്ടല്ലോ അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ എല്ലാ മാധ്യമങ്ങളിലും മലയാള ഭാഷ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കോട്ടയം എന്നു പറയുന്നൊരു അക്ഷയ നഗരി അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം കറക്റ്റ് അച്ചടി കറക്റ്റ് മലയാളം ഉപയോഗിക്കുന്ന ആ ഒരു നഗരമാണ് എന്നു പറയുന്നത് അത് പക്കാ മലയാളം ആണ് കോട്ടയം എന്നു പറയുന്നത് ഇപ്പോൾ പക്ഷേ നമ്മൾ കടൽ തീരത്തോട്ട് ആലപ്പുഴയുടെ കടൽ ഭാഗങ്ങൾ അവിടോട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും മലയാള ഭാഷയുടെ ശൈലിയും ആ ഒരു രീതിയൊക്കെ നമുക്ക് വ്യത്യാസം വരും പക്ഷെ ഈ മാധ്യമങ്ങളും പല മാധ്യമങ്ങളും അതായത് റേഡിയോ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും അച്ചടി മാധ്യമം ഒക്കെയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ശൈലിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്